ഫോട്ടോകൾ കാണും അതു പോലെ തന്നെ പിന്നെ മറ്റുള്ളവരുടെ ഓല്ലെ ഇതിന് ലൈഡിയെ ലൈറ്റടിക്കാറുണ്ട് പിന്നേ ഇത് ഇത് പോസ്റ്റ് ചെയ്യാറുണ്ട് അത് തമാശയിൽ പിന്നേ

ഇതും കോം ഓം മറ്റെ ഇത് കോമഡികളൊക്കെ കാണാനൊക്കെ ഉണ്ട് അതിനാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഫോട്ടോസ് കാൺ നല്ല നല്ല കണ്ടൻറ്റുകൾ ഓരോരുത്തരുടെയും ഓരോ വാക്കുകൾ അതൊക്കെ കേൾക്കാൻ അതല്ലാതെ ആ വെറുതെ തം സമയം കളയാനുള്ള ഇതു കൊണ്ടു മാത്രം